ഹലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ് ഓഡർ ചെയ്തിരുന്നു അത് ഫോട്ടോയിൽ കണ്ടപ്പോഴും നിങ്ങളുടെ ഇതിന്റെ വിവരങ്ങൾ വായിച്ചപ്പോഴും നല്ല തുണിത്തരം ആണെന്ന് ഞാൻ വിശ്വസിച്ചു അത് ഓഡർ ചെയ്യുകയും ചെയ്തു എന്നാൽ തുണി എന്റെ കയ്യിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ച രീതിയിലുള്ള തുണി അല്ലായിരുന്നു മാത്രമല്ല അതിലൊരു കീറലുണ്ടായിരുന്നു ഇക്കാരണങ്ങളാൽ ഞാൻ അത് തിരികെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് ഞാനത് തിരികെ ഏൽപ്പിക്കേണ്ടത് എനിക്ക് നഷ്ടമായ കാശ് നിങ്ങൾ തിരികെ തരുമോ